ഞാൻ ഡ്രോയിങ് ക്ലാസ് എടുത്തിട്ടുണ്ട് കുട്ടികൾക്കായിരുന്നു ക്ലാസ് ആ ക്ലാസിൽ എനിക്ക് മനസ്സിലായത് കലാ എന്നുള്ളത് നമുക്ക് ജന്മനാ കിട്ടുന്ന ഒരു കഴിവാണെന്നും ആ കഴിവിനെ കഴിവുള്ളവർ അതിനെ കാണുന്ന ഒരു ആ കലയെ കാണുന്ന ഒരു വ്യത്യാസം നമുക്ക് പെട്ടന്ന് തിരിച്ചറിയാൻ പറ്റും കലയെപ്പറ്റി അധികം അറിയാത്തവർക്ക് അത് മനസ്സിലാക്കായിയെടുക്കാൻ ഒരുപാട് സമയമെടുക്കുകയും എന്നാൽ കലയെ ഒരു ഇത്തിരിയെങ്കിലും ഉള്ളിലുള്ള ആൾക്കാർ ആവുമ്പോൾ അതിനോട് ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് പെട്ടന്നത് മനസ്സിലാകാനും ഇടയാവുന്നുണ്ട്